യാത്ര ബുദ്ധിമുട്ടില്ലാതെ നടത്തിക്കൊണ്ട് പോകാനും സുഖമായിട്ട് ഒരു യാത്ര പോകാനും എങ്ങനെയാണ് ആസൂത്രണം ചെയ്യാമെന്ന് ചോദിച്ച് പറഞ്ഞാൽ ആദ്യം ഒരു നല്ലൊരു പ്ലേസ് കണ്ടെത്തും പ്ലേസ് കണ്ടെത്തിയിട്ട് ഇപ്പോൾ നമ്മളുടെ ഈ ഇൻ ഈ കേരളത്തിന് പുറത്തുള്ള ഒരു നല്ലൊരു പ്ലേസ് കണ്ടെത്തിയിട്ട് ഫാമിലി ആയിട്ട് പോകാൻ മാക്സിമം ശ്രമിക്കില്ല കാരണം ഫാമിലിയിലെ ചിലർക്കൊക്കെ ബുദ്ധിമുട്ടുള്ളതു കൊണ്ട് നമ്മൾ ഫാമിലി ആയിട്ട് പോകാൻ ശ്രമിക്കില്ല പിന്നെയെന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സ് ആയിട്ട് പോകാൻ കൂടുതൽ നോക്കും ഫ്രണ്ട്സ് ആയിട്ട് പോകാൻ കൂടുതൽ നോക്കും പിന്നെ ഏതൊക്കെ സ്ഥലങ്ങളിൽ പോ പോകാം എന്ന് പറഞ്ഞാൽ ട്രാഫിക്കില്ലാതെ അവിടെ നമുക്ക് എത്ര മണിക്ക് എത്താൻ പറ്റും എന്നുള്ളതൊക്കെ നോക്കീട്ടായിരിക്കും ഒരു സ്ഥലത്തേക്ക് ഫസ്റ്റ് കാലെടുത്ത് വയ്ക്കുന്നത് ഇപ്പോൾ നമ്മൾ എല്ലാ കാര്യവും നോക്കണം അവിടുത്തെ ഫുഡ് എങ്ങിനെ ആയിരിക്കും അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാർ എങ്ങിനെ ആയിരിക്കും അവരുടെ അടുത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളുടെ ഭാഷയും അവരുടെ ഭാഷയും തമ്മിലുള്ള വ്യത്യാസം എങ്ങിനെ ആയിരിക്കും നമ്മൾ പറയുന്നത് അവർക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നതും പിന്നെ അതേപോലെ തന്നെ അവർക്ക് നമ്മളിപ്പോൾ അവർ നമ്മളോട് പറയുന്ന ഭാഷ നമുക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടായിരിക്കും നമ്മളൊരു പ്ലാൻ ചെയ്യുക പിന്നെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തിനാണെന്നുവെച്ചാൽ നല്ല പ്ലേസ് കാണാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക സുഖമായിട്ട് നമ്മൾക്ക് പോയി വരാൻ സുഖകരമായിട്ടുള്ളൊരു പ്ലേസ് തന്നെയായിരിക്കും കണ്ടെത്താൻ ശ്രമിക്കുന്നത് ഇതു പോലെ കണ്ടെത്തിയ ഒരു പ്ലേസെന്ന് വെച്ച് പറഞ്ഞാൽ ഞാൻ പോയ ഒരു ബ്യുട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് എന്ന് പറഞ്ഞാൽ കാശ്മീരാണ് അവിടെ മറ്റുള്ളവർ നമ്മളോട് സംസാരിക്കാൻ നമ്മൾക്ക് ഇടപഴകുന്നതും നന്നായിട്ട് അറിയുന്നത് കൊണ്ട് തന്നെ അവരോട് നന്നായിട്ട് മിംഗിൾ ആകാൻ ശ്രമിച്ചിരുന്നു കൂടുതൽ അങ്ങനെ ആണ് ചെയ്തത് പിന്നെയെന്നു പറഞ്ഞാൽ അവിടുത്തെ പ്ലേസ് കുറേ പ്ലേസ് കാണാനുണ്ടായിരുന്നു അവിടുത്തെ മഞ്ഞുണ്ട് മഞ്ഞും തണുപ്പും എല്ലാം കൊണ്ട് തന്നെയാണ് അവിടെ ഇത്രയും ദിവസം ഞാൻ പോയിട്ട് ഒരഞ്ച് ദിവസം വരെ ഞാൻ നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഭയങ്കര സുഖമുള്ളൊരൂ പരിപാടി തന്നെ ആയിരുന്നു കാരണം നമ്മൾ ട്രാവൽ ചെയ്യുന്ന നമുക്ക് ഇഷ്ടമുള്ളതു കൊണ്ടാണല്ലോ നമ്മൾ ട്രാവൽ ചെയ്യുന്നത് അപ്പോൾ അത് നന്നായിട്ട് എന്ജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഫീലില് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ ശ്രമിച്ചു എന്നുള്ളതാണ് പറയാനുള്ളത് യാത്ര കൂടുതൽ ശുഖമാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആ ഒരു തടസ്സങ്ങളൊന്നും ഇല്ലാതെ എങ്ങനെയാണ് ഒരു യാത്ര മുന്നോട്ട് കൊണ്ട് പോയേക്കണേ അല്ലെങ്കിൽ ആ ഒരു സ്റ്റെപ്പ് നെക്സ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെയ്ക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്